ഹലോ സ്മിത ചേച്ചിയല്ലേ ഞാൻ അമലയാണ് വീടിൻ്റെ പണിയൊക്കെ എന്തോരായി എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ചേച്ചി അതെന്ത് പറ്റി അയ്യോടാ അയ്യോ അപ്പോൾ ഇനി എന്താണ് ചെയ്യുക കൂലിക്ക് ആളെ വയ്ക്കത്തില്ലായിരുന്നോ അപ്പോൾ ഉം ആ മതിലൊക്കെ എങ്ങനെയാണ് കരിങ്കല്ല് വച്ചാണോ അതോ ഹോളോ ബ്ലോക്ക് കട്ട വച്ചാണോ ആ ആ ശരിയാണ് ശരിയാണ് പൈസക്ക് തന്നെ എല്ലാവർക്കും ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ അത് ശരിയാണ് സ്വർണ്ണമൊക്കെ വല്ലതും പണയം വച്ചോ വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതിന് പൈസ ആയിട്ടില്ല പിന്നെ ഈ മഴയെല്ലാം ഒന്നൊതുങ്ങിയിട്ട് വയ്ക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ എല്ലാവരും പറയുന്നൂ സ്വർണ്ണം സ്വർണ്ണം പണയത്തിന് വയ്ക്കേണ്ടി വരും ആൻ്റിയുടെ ഒരാളുടെ വീട് പണി കഴിഞ്ഞായിരുന്നു അപ്പോൾ ആൻ്റി സ്വർണ്ണമൊക്കെ പണയം വച്ചാണ് വീട് പണി കബോഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ അതിന് നല്ല പൈസ ആവുന്നതിനും ഇപ്പോൾ തൽക്കാലത്തേക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് പിന്നത്തേക്ക് മാറ്റി വച്ചേക്കുവാണ് ആ ശരിയാനണ് ഞങ്ങൾ എന്തായാലും ഒന്നു കൂടി ആലോചിച്ചിട്ട് എല്ലാം അറഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ എന്തായാലും പത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം എന്തായാലും വരും തറ തൊട്ട് കെട്ടണം കട്ടില വയ്ക്കണം വാർക്ക ചെയ്യണം ഉം അത് ശരിയാണ് അല്ലെങ്കിൽ പുതിയ ഒരു വീട് പണിതത് മേടിക്കണം അപ്പോൾ ഇവിടെ ഉള്ളത് പൊളിച്ച് പണിയാം എന്നാണ് വിചാരിക്കുന്നത് ശരിയാണ് ഇപ്പോഴത്തെ പണിയിൽ ഫുള്ള് കള്ളത്തരങ്ങളാണല്ലോ ഇപ്പോൾ വീട് മേടിച്ചാലും വീടിൻ്റെ ഉള്ളിലേക്കുള്ള ഫർണിച്ചറും കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും നല്ല പൈസയല്ലേ ആ അത് ശരിയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടു പുതിയ ഡിസൈനുകൾ ഇപ്പോൾ വീടുകൾക്കാണെങ്കിലും പുതിയ ഫാഷനും ഡിസൈനുകളൊക്കെ ആണല്ലോ അതെല്ലാം അന്വേഷിച്ച് അറിഞ്ഞ് കണ്ടു വയ്ക്കണം അതുകൊണ്ട് ഞാൻ ഒന്നു കൂടി ആലോജിച്ചിട്ട് ചേട്ടനോട് ചോദിച്ചിട്ട് പയ്യെ അതിന് ഉള്ള തീരുമാനം എടുക്കുന്നുള്ളു ഏത് ബാങ്കിൽ നിന്നാണ് ഏത് ബാങ്കിൽ നിന്നാണ് ആ ആ ആ ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ വിളിക്കാം കേട്ടോ ചേച്ചി ശരി എന്നാൽ ആ